ആ അതെ എന്താണ് അസുഖം മരുന്ന് കഴിച്ചിരുന്നോ കുറവില്ലേ വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ ആ എന്നാൽ ഇത് പകർച്ച പനി ആയിരിക്കും മോളുടേത് മാറീനാ അപ്പോൾ ഇത് പകർച്ച പനി ആയിരിക്കും കുട്ടിക്കുള്ളതുകൊണ്ട് എന്തായാലും അമ്മയ്ക്കും വരുമല്ലോ അപ്പോൾ അങ്ങനെ പകർന്നതായിരിക്കും പിന്നെ വേറെ വീട്ടിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ പകർച്ച പനി ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും വരും ഇപ്പോൾ നിൻ്റെ മാറുമ്പോഴത്തേക്കും അടുത്ത ആൾക്ക് വരും പിന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നാൽ മതി പിന്നെ വേറെ ടാബ്ലറ്റ് എഴുതി തരാം പിന്നെ അതുപോലെ റസ്റ്റ് എടുക്കണം കേട്ടോ നന്നായിട്ട് തൊണ്ട വേദന ഉണ്ടോ ആ ഇതിന് തൊണ്ടവേദന ഉണ്ടാവും ഇങ്ങനെ ഇപ്പോൾ വരുന്നവരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ തൊണ്ടവേദന രണ്ട് ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലേ വന്നിട്ട് ആ എന്നാൽ പെട്ടെന്ന് തന്നെ കാണിച്ചാൽ മാറും പിന്നെ പാരസെറ്റാമോൾ കുടിച്ചാൽ മതി ഇപ്പോൾ കൈയിൽ ഉള്ളത് കുടിച്ചാൽ മതി എന്നിട്ട് നാളെ രാവിലെ വന്നിട്ട് ഒന്ന് കാണിച്ചാൽ മതി ബുക്ക് ചെയ്യുന്നുണ്ടോ ആ എന്നാൽ നിങ്ങൾ രാവിലെ രാവിലെ ഒരു എട്ട് മണിക്ക് വിളിച്ചാൽ മതി ബുക്കിങ്ങ് പത്ത് മണിക്കാണ് കാണിക്കാൻ വരേണ്ടത് എട്ട് മണിക്ക് ബുക്ക് ചെയ്താൽ അപ്പോൾ രാവിലെ തന്നെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് പോവാൻ പറ്റും പിന്നെ നന്നായിട്ട് റസ്റ്റ് എടുക്കണം കേട്ടോ പിന്നെ വെള്ളവും കുടിക്കണം നന്നായിട്ട് റെസ്റ്റും എടുക്കണം പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിക്കണം ഇത് നല്ല ക്ഷീണം ഉണ്ടാവും അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നോ പുറത്തൊന്നും പോവേണ്ട ഇപ്പോൾ വേറെ ആർക്കും പനി വരുത്തേണ്ടല്ലോ പിന്നെ ഈ ഉപയോഗിച്ച സാധനങ്ങളൊന്നും വേറെ ആൾക്ക് കൊടുക്കേണ്ട സോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും സോപ്പ് ഒന്നും പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ വയർ വേദനയോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഇല്ലേ ആ ആ എന്നാൽ പിന്നെ നാളെ രാവിലെ വന്നാൽ മതി രാവിലെ പെട്ടെന്ന് വന്നാൽ കാണിക്കാം ബുക്ക് ചെയ്തിട്ട് വന്നാൽ മതി ഒന്ന് വിളിച്ചിട്ട് വന്നാൽ മതി ഈ നമ്പറിൽ തന്നെ വിളിച്ചാൽ മതി അപ്പോൾ ഈ നമ്പറിലാണ് എട്ടുമണിക്ക് എട്ടുമണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എട്ട് മണിക്ക് തന്നെ വിളിക്കണം ആ ആ